മേ ഐ കം ഇൻ സാർ ഇതാ സാർ ഡിഗ്രി ഞാന് പാലക്കാട് വിക്ടോറിയ കോളേജ് ഞാൻ ബികോം ആയിരുന്നു പി ജി ഞാൻ ഇവിടെ പത്തിരിപ്പാല കോളേജിലായിരുന്നു മ് ആ അതെ സാർ സാർ ഞാൻ പി ജി ഡി സി എ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു വൺ ഇയർ കരിയർ കോഴ്സ് ആണ് അത് മ് അപ്പം അത് പത്തിരിപ്പാലയിലാണ് ചെയ്തത് അതിനോടൊപ്പം തന്നെ ഞാന് ടാലി കോഴ്സ് കൂടെ കമ്പ്ലീറ്റ് ചെയ്തിട്ട് ഉണ്ട് ഞാൻ ചെന്നൈയിൽ ഒരു സിക്സ് മന്ത്സ് വർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നു സാർ പി ജി ഞാൻ രണ്ടായിരത്തി പതിനേഴില് ആ അതെ സാർ ഞാൻ പുറത്ത് ഫാമിലി ഒക്കെ ആയിട്ട് പുറത്ത്

ആ അറിയാം സാർ അക്കൗണ്ട് സെക്ഷനിലേക്ക് അല്ലേ ആ ആ ഓക്കെ സാർ ഓക്കെ സാർ ആ കുഴപ്പം ഇല്ല സാർ ഇൻ്ററസ്റ്റടാണ് മ്

ഇല്ല സാർ പോയി വരാവുന്ന ദൂരം ആണ് അപ്പം ഞാൻ ഡെയിലി പോയി വന്നോളാം സാർ ഇത് പ്രോപ്പർ ആയിട്ട് പ്ലേസ് എവിടെ ആണ് ഇൻസ്റ്റിട്യൂട്ട് നിൽക്കുന്ന ഓക്കെ സാർ ഓക്കെ സാർ ഓക്കെ സാർ വേറെ പിഎസുകാര് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ സാർ

ഓക്കെ സാർ ഓക്കെ സാർ നമുക്ക് പിന്നെ ഡെയിലി ടാർഗറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ ഇതില്

മ് ഓക്കെ സാർ ആ അത് പറ ആ ഓക്കെ സാർ ഓക്കെ സാർ മ് മ് ഓക്കെ വർക്കിംഗ് ഹവേഴ്സ് ഒക്കെ എങ്ങനെ ആയിരിക്കും സാർ

ഓക്കെ സാർ ആ ഓക്കെ ആ ഓക്കെ സാർ

ആ ഓക്കെ സാർ ഇത് എങ്ങനെ ബോണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ ഇത്ര വർഷത്തിൻ്റെ പറഞ്ഞിട്ട് ഓക്കെ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ആ ഫസ്റ്റില് വരാം സാർ മ് ഇത് ഇപ്പം ഈ മാസം കഴിയാറായില്ലേ ആ കൊണ്ട് വരാം സാർ ആ